ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലേറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് മുഗൾ രാജവംശ കാലഘട്ടമെന്നു പറയുന്നത് മുഗൾ രാജവംശത്തിലേറ്റവും പ്രഗൽഭനായ ഒരു അനുസ്മരിക്കപ്പെടേണ്ട രണ്ടു വ്യക്തികളാണൊന്ന് അക്ബർ ചർക ചക്രവർത്തിയും ഒന്ന് ഷാ ജഹാൻ ചക്രവർത്തിയും ആ ഷാ ജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായി നിർമ്മിച്ചതാണ് ലോകാൽഭുതങ്ങളിലൊന്നായ താജ് മഹൽ ഇന്ത്യയിലേ വളരെയധികം വിദേശികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന ഒരു വലിയൊരു ഒരു ശിൽപ്പമാണ് ആധുനിക ശിൽപ്പമാണ് താജ് മഹലെന്നു പറയുന്നത് അതിന്റെ ലോകാത്ഭുതങ്ങളിലൊന്നാണ് താജ് മഹൽ അതിൻ്റെ ശിൽപ്പം ഘടനയെന്നു പറയുന്നു അതു നിർമ്മിച്ച രീതികൾ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെയാണ് ശിൽപ്പ ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് താജ് മഹൽ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ സംസ്കാരം നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു അതിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ പുരാതന സാംസ്ക്കാരിക വകുപ്പ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അത് യമുനാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ആഗ്രയിൽ യമുനാതീരത്ത് സ്ഥിതി ചെയ്യുന്ന അതാണ് ആ സ്നേഹ ഷാ ജഹാൻ്റെ തൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിർമ്മിച്ചതാണ് താജ് മഹൽ എന്നു പറയുന്നത് ഏറ്റവും ഇന്ത്യയെ ഇപ്പോഴത്തെ ഇന്ന് കാണുന്ന അഫ്ഗാനിസ്താൻ പാക്കിസ്താനുൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു മുഗൾ സാമ്രാജ്യമെന്നു പറയുന്നത് ആ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും നല്ല ഒരു അവരുടെ കൂടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഈ താജ് മഹൽ എന്നു പറയുന്നത്